ഹലോ മാഡം നയന്റീൻ എയ്റ്റിൻസ് റെസ്റ്റോറൻറ്റ്

അ പിടിയും കോഴിയും ഉണ്ട്

പിടി അരി പൊടിച്ച് കൊണ്ടുവരും ഉണക്കിയിട്ട് അത് വറുത്ത് ഉരുട്ടിയിട്ട് നനച്ച് ചെറിയ നനവോടെ ഉരുട്ടിയിട്ട് കുഴച്ചിട്ടാണ് വെക്കുക ആവിക്ക് വെക്കും അതെ തേങ്ങാ പാലൊഴിക്കും അതേ എന്നിട്ട് വേവിക്കും അതെ ജീരകമൊക്കെ പൊടിച്ച് ചേർക്കുകയാണ് ചെയ്യുക ജീരകം ഏലക്കായ ഒക്കെ ചേർക്കുകയാണ് ചെയ്യുക കറി സാധ കോഴി കറി തന്നെ ഫ്രൈ ഉണ്ട് ഇപ്പോൾ ഫ്രൈ ഉണ്ട് സാധാ കറി ഉണ്ട് പിന്നെ ബിരിയാണി ഉണ്ട് ബിരിയാണി ബിരിയാണി പിന്നെ മട്ടൺ ഉണ്ട് ചിക്കൻ ഉണ്ട് മീൻ ഉണ്ട് ബീഫ് ഉണ്ട് തിങ്കളാഴ്ചത്തേക്കോ എത്ര വേണം

വീട്ടിൽ കൊണ്ടുവന്ന് തരണോ എവിടെ ആണ് വീട് റേറ്റ് നിങ്ങൾക്ക് ഒരു ആറായിരം രൂപ വരും അതെ നൂറ് പേർക്ക് ആറായിരം വരും പിന്നെ അതിനുള്ള വേറെ എന്തെങ്കിലും സാലഡോ സാലഡ് എല്ലാം കൂടി ആണ് പറയുന്നത് അല്ല അച്ചാർ ഉണ്ടാവും പിന്നെ വീട് എവിടെയാണ് മാനന്തവാടി ഒന്ന് സ്ഥലം പറയുവോ അതെ പിന്നെ അതുപോലെതന്നെ വേറെ ലൈമോ അങ്ങനെ എന്തെങ്കിലും അതും നൂറ് പേർക്ക് അതേപോലെതന്നെ കേക്ക് അങ്ങനെ എന്തെങ്കിലും ലഡൂ ലഡൂ എത്രെ നൂറ് പേർക്ക് തന്നെയാണോ

ഓക്കെ പിന്നേ ഇത് ഭക്ഷണം വിളമ്പാൻ ആളെ വേണൊ ഓക്കെ ഓക്കെ ഞങ്ങൾ എത്തിക്കാം അ പ്ലേറ്റും കാര്യങ്ങളും ഞങ്ങള് കൊണ്ടുവരും ഓക്കെ ഓക്കെ എന്നാൽ ഞങ്ങള് വിളിക്കാം ലൊക്കേഷൻ ഇടണം ഓക്കെ ശരി